ഇപ്പം ഞാനൊരു ഫോട്ടോഗ്രാഫറാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ഇന്ത്യയെ എനിക്കിപ്പം ഇന്ത്യയെ കാണിക്കാനായിട്ടൊക്കെ ഒരവസരം ലഭിച്ചാൽ ഞാനെന്താ കാണിക്കുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മെയിനായിട്ടുള്ളൊരു അതായത് ജല മലിനീകരണം ആണ് മെയിന് ഇപ്പം കാരണം എന്താ വെച്ചിട്ടുണ്ടങ്കിൽ നമ്മുടെ ജില്ലേത്തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കടലിലാണെങ്കിലും കായലുകളിലാണെങ്കിലും നമുക്കൊരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ നിറഞ്ഞു കൊണ്ടിരിക്ക്യാണ് ഇപ്പം ആ വെള്ളങ്ങളൊക്കെയാണ് നമ്മള് കുടിക്കാനും അതായത് എങ്ങനെ ഏതെങ്കിലും വഴി നമുക്കെത്തുന്നത് അപ്പം അതാരും ചിന്തിക്കുന്നില്ല എല്ലാരും ഇതൊക്കെ വൃത്തി കേടാക്കുന്നതും എല്ലാം നമ്മള് മനുഷ്യന്മാരാണ് അപ്പോൾ അതിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഇന്ത്യയെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇവർക്കൊക്കെ കുറച്ച് ബോധം കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതായത് ഈയൊരു പിന്നെ അവസ്ഥ പിന്നെ ഇണ്ടാവാതിരിക്കാൻ അതായത് എല്ലാവരും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ ഞാനതാണ് ഉദ്ദേശിക്കുന്നത്